ബൈക്കിങ്ങിനോട് എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ച എൻ്റെ ഒരു ആഗ്രഹം പ്രചോദിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ സഹോദരന്റെ മകൻ അവന് വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ് അപ്പം അവന്റേത് കണ്ടാണ് ഞാൻ എന്തായത് ബൈക്ക് ഓടിക്കാൻ ഓന്റെ അടുത്തുന്നാണ് ബൈക്ക് ഓടിക്കാൻ ഓടിക്കാൻ പഠിച്ചത് അങ്ങനെ ഞാൻ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു അന്ന് അന്ന് കുറേ കുറച്ചൂടെ മുമ്പ് ബൈക്ക് റായ്സിങ് ഉണ്ടായിരുന്നു അന്ന് അവനൊക്കെ പങ്കെടുത്തിനു അതൊരു ഫസ്റ്റ് ഒക്കെ വേണ്ടിയിരുന്നു അപ്പോൾ ഓൻ്റെ ബൈക്ക് റേസിങ്ങും അതുപോലെ ഓൻ്റെ ബൈക്ക് ഡ്രൈവിങ് ഒക്കെയാണ് എന്നെ എന്നെ പ്രചോദിപ്പിച്ചത് പിന്നെ അങ്ങനെ ഞാൻ എന്തായി എനിക്ക് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നതും പതിനെട്ട് വയസ്സായ അന്ന് തന്നെ എന്തായി ലൈസൻസ് അപേക്ഷിക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ വേറൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ബൈക്ക് റേസിങ് ഈ ബൈക്കിൽ നമ്മൾ ഹെൽമെറ്റ് ഇട്ടൊക്കെ പോകുമ്പം അത് ഇരുചക്രവാഹന തന്നെ എനിക്ക് വളരെ വളരെയധികം ഒരാൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് ബൈക്ക് ഓടിക്കാനും കഴിയുന്നൊരു വാഹനമാണ് ബൈക്കന്ന് സാധാരണ കാറ് പോലെ കാറ് പോലെയോ ലോറി പോലെയൊന്നും അല്ല ചെറിയ വാഹനമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാനും ഓടിക്കുക ഓടിക്കാനും കഴിയുന്നൊരു വാഹനമാണ് അപ്പോൾ അതും എന്റെ ഒരു പ്രചോദനമാണ് പിന്നെ എന്നിലൂടെ ധാരാളം ആളുകൾക്ക് എനിക്ക് പ്രചോദിപ്പിക്കാനും ഞാൻ ധാരാളം ആളുകൾക്ക് പഠിപ്പിച്ച് കൊടുക്കുകയും അങ്ങനെ ഞാൻ കാരണം കുറേ ധാരാളം ആളുകൾ ബൈക്ക് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ കിട്ടുന്ന വേറൊരു എന്താ പറയുക ഒരു സിറ്റുവേഷനുള്ള ഒരു ഫീലിംങ് ഉണ്ട് ആ ഒരു ഫീലിങ് നമുക്ക് മറ്റ് കാർ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിട്ടില്ല ഈ ഒരു ഫീലിംങ് കൂടെയാണ് എൻ്റെ ഒരു പ്രചോദനം